എനിക്ക് ഒരു കസ്റ്റമർ അത് നമ്മുടെ ഈ ജില് നമ്മള ജില്ലയിലല്ലാ പുറത്തുള്ള ഒരാളായിരുന്നു അവർ കുറെ സ്ഥലങ്ങളിൽ കയറിയിറങ്ങി അവർ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ട് വരുന്ന ഒരു മോഡലാണ് റൗണ്ട് ഷെയിപ്പിനൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ആ മോഡല് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തയ്ച്ചിട്ടില്ലായിരുന്നു അവർ കൊണ്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ തയ്ച്ചിട്ടില്ലാ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോന്ന് എനിക്കറിഞ്ഞൂടാ അതപ്പോൾ അവർക്ക് ഞാൻ തയ്ച്ച് കൊടുത്താലേ പറ്റുള്ളു അവർ നിർബന്ധം പറഞ്ഞ് എന്തായാലും നീ ഒന്ന് തയ്ച്ച് നോക്ക് റെഡിയാകോന്ന് നോക്ക് കുഴപ്പമില്ല ശരിയായില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞാൻ അത് അങ്ങനെ കട്ട് ചെയ്ത് തയ്ച്ച് വന്ന് പക്ഷേ എനിക്ക് ഇറക്കം കുറഞ്ഞ് പോയി ഇറക്കം കുറഞ്ഞ് പോയി അവരുടെ തുണിയും പോയി ഞാൻ ആകെ വിഷമിച്ച് പോയി പിന്നെ ഞാൻ ആ തുണി കൊണ്ടുപോയി വേറെ തുണിയെടുത്ത് പിന്നെ അത് കണക്കാക്കി ഞാൻ കുറച്ച് അളവ് കൂട്ടിയിട്ട് അത് തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അത് അപ്പം അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഞാൻ ആർക്കും അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടില്ലാ ഞാനങ്ങനെ പുതിയ തുണിയെടുത്ത് എനിക്ക് തയ്ച്ച് കൊടുക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് എനിക്ക് അതിലൊരു അബദ്ധം പറ്റി പിന്നെ ഞാൻ വേറെ തുണിയെടുത്ത് തയ്ച്ച് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു